ഞാൻ ഓൺലൈനിലൂടെ ഒരു സാരി പർച്ചേസ് ചെയ്തു ഫെസ്റ്റിവൽ ഓഫർ എന്ന് പറഞ്ഞ് വില കുറച്ചാണ് എനിക്ക് കിട്ടിയത് പക്ഷേ ആ സാരിക്ക് അത്ര വില ഉണ്ടായിരുന്നില്ല ഞാൻ വാങ്ങിച്ചത് രണ്ടായിരം രൂപയ്ക്കാണ് പക്ഷേ അതില് മാർക്കറ്റ് പ്ലേസ് പ്രൈസ് വന്നിട്ട് ആയിരത്തിൽ താഴെയേ ഉണ്ടായിരുന്നുള്ളൂ എന്നെ ചീറ്റ് ചെയ്യുകയാണ് ചെയ്തത് ആ നല്ല മെറ്റീരിയലാണ് ഡ്രൈവാഷിനും ഡ്രൈവാഷല്ലാതെ നമ്മള് സാധാരണ വാഷ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് അവര് എന്നോട് പറഞ്ഞത് പക്ഷേ അത് ഫസ്റ്റ് വാഷിൽ തന്നെ അതിൻ്റെ കളറെല്ലാം ഫെയിഡായി എന്റെ കുറേ പൈസ നഷ്ടമായി എന്നല്ലാതെ ഞാനാഗ്രഹിച്ചത് പോലെ എനിക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റിയില്ല ഇങ്ങനത്തെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് വട്ടം അല്ലെങ്കിൽ പത്ത് വട്ടം ആലോചിച്ചിട്ട് വേണം ഓൺലൈൻ പർച്ചേസ് നടത്താൻ അല്ലെങ്കിൽ നമ്മള് ചതിക്കപ്പെടും